കണ്ണൂര് കാസർഗോഡ് ഭാഗത്ത് വിനോദ സഞ്ചാരി പ്രദേ പരിചിതമായ പ്രാദേശികമായ വിനോദ രൂപങ്ങളിലൊന്നാണ് തെയ്യം തെയ്യമെന്ന് വെച്ചാൽ ഉത്സവമായിട്ട് കണക്കാക്കും തറ ആയി തറ തറ ആയിട്ടാ നമ്മൾ കണക്കാക്കാറ് അത് ഒരു സമയത്തു മാത്രമേ ഉണ്ടാവു ഡിസംബർ മുതൽ മാർച്ച് ഏപ്രിൽ ആ ഒരു സമയം വരയെ ഉണ്ടാവുള്ളു ഒരുപാട് രീതിയിലുള്ള തെയ്യങ്ങളുണ്ട് ആ ആ തെയ്യത്തിന് അതിൻറ്റേതായ കഥകളുണ്ട് രൂപങ്ങളുണ്ട് വളരെ മനോഹരമാണ് കാണാൻ അപ്പോൾ അത് വിനോദ സഞ്ചാരികൾക്ക് പരിചിതമായ പ്രാദേശികമായൊരു വിനോദ രൂപം തന്നെയാണ് പിന്നെ മറ്റൊന്ന് കണ്ണൂരിൽ കണ്ണൂരിലൊന്നാണ് മുത്തപ്പൻ വെള്ളാട്ടം മുത്തപ്പൻ വെള്ളാട്ടമെന്ന് പറയുന്നത് കണ്ണൂരിന്റെ ദൈവമായി കാണുന്ന ഒന്നാണ് മുത്തപ്പൻ മുത്തപ്പനെ കാണുകയെന്ന് വെച്ചാൽ ദൈവത്തിനെ കാണുന്ന പോലെയാണ് കണ്ണൂരുകാർ കാണുന്നത് അത് മുത്തപ്പൻ എന്ന് പറയുന്നത് ദൈവമായിട്ടാണ് കണ്ണൂര് അവർക്കൊരു എന്താ പറയുക ഒരു ശക്തി കൊടുക്കുകയാണ് മുത്തപ്പനെ കാണുമ്പം അപ്പോഴും അതും അതും അതും മുത്തപ്പനും മുത്തപ്പൻ്റെ വീടൊക്കെ സന്ദർശിക്കുകയെന്ന് പറയുന്നത് അവര് മനസ്സും ഒരു കുളിർമ കൊടുക്കുന്ന കാര്യമായതുകൊണ്ട് അതും വിനോദ സഞ്ചാരി പ്രാദേശികമായി വിനോദ രൂപമെന്നാണ് പിന്നേന്ന് വെച്ചാൽ കഥകളി പിന്നെ കഥകളിയുണ്ട് പിന്നെ തൃശ്ശൂർ പൂരം ഇങ്ങനെയുള്ള ഒരുപാട് പ്രാദേശികമായ വിനോദ രൂപങ്ങളുണ്ട് തൃശ്ശൂർ പൂരമെന്നൊക്കെ വെച്ചാൽ പത്തു ആനകളൊക്കെ നെറ്റിപ്പട്ടമൊക്കെ ചുറ്റി നിൽക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ് ആ ചെണ്ടമേളം പിന്നെ ആളുകൾ ഓ ലക്ഷക്കണക്കിന് ആളുകൾ വന്നുനിൽക്കുന്നതും അതൊക്കെ കാണുമ്പം തന്നെ ഞങ്ങളെ മനസ്സിനൊരു കുളിർമ തന്നെയാണ് പിന്നെ കഥകളി കാണുക കഥകളിയിലൂടെ കഥകൾ മനസ്സിലാക്കാൻ പറ്റും പഴയ കാല കഥകൾ പിന്നെ അങ്ങനെയുള്ള ഒരുപാട് നാടോടി നൃത്തം തിരുവാതിര ഓണത്തിനൊക്കെ തിരുവാതിര എന്നൊക്കെ പറയുന്നത് വളരെ മനോഹരമാണ് അതൊക്കെ കാണുമ്പം ഒരു രസമാണ് കോൽക്കളി അത് സ്ത്രീകൾ ഇങ്ങനെ കോലുകൊണ്ട് അടിച്ചടിച്ച് കളിക്കുന്നൊരു സംഭവമാണ് അത് കാണാൻ ഒരു മനോഹരമായ രീതിയിലാണ് അവരത് ചിത്രീകരിക്കുന്നത് അതൊക്കെ കാണാമെന്ന് വെച്ചാൽ ഭയങ്കര രസം തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേരളം സന്ദർശിക്കുമ്പോൾ വിനോദസഞ്ചാരികൾക്ക് പ്രാദേശികമായ വിനോദ രൂപങ്ങൾ